ഇന്ത്യയിലെ ഗതാഗതമാർഗങ്ങൾ നിരവധിയാണ് കരയിലൂടെയും കടലിലൂടെയും ഒക്കെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഗതാഗത മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട് കരയിലൂടെ വാഹന കരയിലൂടെ വാഹനങ്ങൾ വഴിയും ട്രെയ്നുകൾ വഴിയുമൊക്കെ എല്ലാവരും സഞ്ചരിക്കുന്നുണ്ട് അതുപോലെ വിമാനങ്ങൾ ഇന്ന് ഈ ഈ കാലങ്ങളിൽ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തെത്താൻ വേണ്ടി എത്താൻ വേണ്ടി ആൾക്കാർ തേടുന്നൊരു മാർഗമാണ് വിമാനങ്ങളിലൂടെയുള്ള യാത്ര പെട്ടന്ന് തന്നെ അവർക്ക് എത്താനും സാധിക്കും അതുപോലെത്തന്നെ വാഹനങ്ങൾ റോഡുകളിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ പര പല തരത്തിലുള്ള വെല്ലുവിളി വെല്ലുവിളികളും അവർ നേരിടേണ്ടി വരുന്നുണ്ട് മഴക്കാലങ്ങളിൽ കൂടുതലായും ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു ജനങ്ങളായാലും ടാറ് ചെയ്ത റോഡുകൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുകയും അതിലൂടെ എല്ലാവർക്കും ഇങ്ങനെ വാഹനങ്ങളിലൂടെ പോകുമ്പോഴൊക്കെ കൂടുതൽ ഗട്ടറുകളിൽ താണുപോകേണ്ടൊരു അവസ്ഥയാണ് കണ്ട് വരുന്നത് അതുകൊണ്ട് തന്നെ മഴക്കാലം അടുപ്പിച്ച് സർക്കാർ ഒരുപാട് കുറച്ച് ഫണ്ട് ഗതാഗതത്തിന് വേണ്ടി മാറ്റിവയ്ക്കേണ്ടതാണ് അതുപോലെ റോഡുകൾ നാന്നായി പുന പുനർനിർമ്മിക്കുകയും ഒരുപാട് കുണ്ടും കുഴികളും ഉള്ള റോഡുകൾ നിരത്തുകയും ടാറിട്ട് വൃത്തിയാക്കുകയും ചെയ്യേണ്ടതാണ് അതുപോലെ കാൽനടയാത്രക്കാർക്കും പര പല ദുരിതങ്ങളും നേരിടേണ്ടി വരുന്നു കുട്ടികൾക്കായാലും കുട്ടികൾ പോകുമ്പോഴും റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ കുണ്ടുകളിലൊക്കെ വീഴുമ്പോഴും കുട്ടികളുടെ മേത്താണെങ്കിലും അതുപോലെ ജനങ്ങളുടെ മേത്താണെങ്കിലും ചെളിവെള്ളം തെറിക്കുകയും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുകയും ചെയ്യുന്നുണ്ട്